ചെടികളും മരങ്ങളും അതേപോലെയുള്ള പച്ചക്കറികളും ഒക്കെ നട്ടുവളർത്തുക എന്നുള്ളത് വളരെ നല്ലൊരു അനുഭവം തരുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ ചെടികളും മരങ്ങളും അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ നട്ട് അതിൽ നിന്ന് പൂവും കായും അതേപോലെ നമുക്ക് വിളകളും നമുക്ക് പച്ചക്കറികളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നൊരു സന്തോഷം എന്നു പറഞ്ഞാൽ അത് വളരെവളരെ വലുതാണ് ശരിക്കും പറഞ്ഞാലത് പ്രകടിപ്പിക്കാൻ പോലും കഴിയില്ല കാരണം അത്രയധികം ഹാപ്പിനെസ്സ് തരുന്നൊരു മൊമെൻറ്റാണത് ഇന്നത്തെ കാലത്ത് ഈ കൃഷിയും അല്ലെങ്കിൽ അതേപോലുള്ള ഫാമിങ് കാര്യങ്ങളൊക്കെ ജനങ്ങൾ കുറച്ച് കുറച്ച് വരുവാണ് കാരണം അവരുടെ ബിസി ഷെഡ്യുൾസിനിടയില് അതൊന്നും ചെയ്യാനായിട്ട് ശെരിക്കും പറഞ്ഞാൽ അവർക്ക് ടൈം കിട്ടാറില്ല വളരെ കുറച്ചാൽക്കാര് മാത്രമേ അതിനൊരു സമയം കണ്ടെത്തിയിട്ട് കറക്റ്റായിട്ട് അതെല്ലാം ചെയ്തുപോകുന്നുള്ളൂ അവരുടെ ആ ഒരു നല്ല പ്രവർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നും എന്താ പറയുക നമുക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മള് ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ നമുക്ക് വേണ്ട പച്ചക്കറികളും അതേപോലെ ഇപ്പോൾ ഫെസ്റ്റിവലിനൊക്കെ നമുക്ക് ആവശ്യമുള്ള പൂക്കളും അതൊക്കെ നമുക്ക് കിട്ടുന്നത് ശെരിക്കും പറഞ്ഞാൽ ഈ ഓണക്കാലത്തൊക്കെ ഈ പൂക്കളൊക്കെ നമ്മള് പുറത്തുള്ള സ്ഥലത്തുനിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുത്തിച്ച് നമ്മളത് യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് പൈസകൊടുത്ത് വാങ്ങി നമ്മള് പൂക്കളവും ഒക്കെ തീർക്കുന്നൊരു കാഴ്ച്ചയൊക്കെയാണ് നമ്മളിന്ന് ഇന്നുള്ളത് എന്നാൽ പണ്ടത്തെ കാലത്തങ്ങനെയല്ല ഓരോ വീടുകളിലും പഴമാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള പൂക്കളാണെങ്കിലും സ്വന്തമായി നട്ടുവളർത്തി അത് യൂസ് ചെയ്തോണ്ടിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് തിരക്ക് പിടിച്ച ജീവിതം കൊണ്ട് നമ്മളതെല്ലാം ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുവരുകയാണ് ശെരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായ കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ചെടികളും മരങ്ങളും തോട്ടത്തില് പുഷ്പിച്ചു നിക്കുന്നതും അല്ലെങ്കിൽ കാ പൂ പൂവിട്ടു നിൽക്കുന്നതൊക്കെ കാണുമ്പം ഒരു ഡിവൈൻ ഹാപ്പിനെസ്സ് എന്ന് തന്നെ പറയാം ആ ഒരു രീതിയിലുള്ള ഒരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്